മലയാള ഭാഷ മലയാള ഭാഷ എന്നു പറയുമ്പോൾ നമ്മള് പണ്ടൊക്കെ നമ്മുടെ വീടുകളില് നമ്മള് മലയാളം ഭാഷകൾ ഉപയോഗിച്ചിരുന്നു മാത്രമല്ല മലയാളം മീഡിയങ്ങളില് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കുന്നു അപ്പോള് അവർക്ക് നല്ല ഭാഷാ സ്പുടത അക്ഷര ശുദ്ധി ഉണ്ടായിരുന്നു ഇന്നത്തെ കാലം വന്നപ്പോള് കാലങ്ങള് മാറി കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് നമ്മള് വിടാൻ തുടങ്ങി അപ്പോള് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് കുഞ്ഞുങ്ങള് ഒരു ഒരു എന്തെങ്കിലും പ്രോ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോള് മലയാളം അറിയാന് വയ്യാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങള് മാറാൻ തുടങ്ങി ഇന്ന് അതിന് ഇപ്പോള് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മക്കളൊക്കെ വളരുമ്പോള് അവർക്ക് മലയാളം ഒന്നും അറിയില്ല പ്രായം കുഞ്ഞുങ്ങളും നാട്ടിൽ വരുമ്പോള് പ്രായമായ കുഞ്ഞുങ്ങള് പ്രായമുള്ള മാതാപിതാക്കള് അതായത് വല്യപ്പന്മാരും വല്യമ്മമാരുടെയൊക്കെ അടുക്കല് അവര് സംസാരിക്കുമ്പോള് അവർക്ക് ഒന്നും അറിയില്ല മലയാളം അറിയില്ല ഗ്രാൻഡ് പാ ഗ്രാ ഗ്രാൻഡ് മമ്മി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോള് ഈ പേരൻറ്റ്സിന് ഒരുപാട് വേദനകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോള് അതിന് അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഇന്ന് അവരുടെ പേരൻറ്റ്സ് ഒത്തിരി ഈ കുഞ്ഞുങ്ങളെ വീട്ടുകളില് തന്നെ മലയാളം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒത്തിരി പേരൻറ്റ്സുണ്ട് അവര് പുറത്തൊക്കെ ജീവിക്കുന്നു എന്നുവരികില് അവര് നന്നായിട്ട് മലയാളം സംസാരിക്കാനു സംസാരിക്കുന്നുണ്ട് അവര് അത്യാവശ്യമൊക്കെ എഴുതാറുണ്ട് അപ്പോള് അതൊക്കെ ഒരു നല്ല കാര്യം നമ്മുടെ മാതൃഭാഷയെ നമ്മള് മറന്നുപോകാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോള് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് ആ പാശ്ചാത്യ സംസ്ക്കാരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നീട് ഇപ്പോള് മലയാളം ക്ലബ്ബുകള് രൂപീകരിച്ചിട്ടുണ്ട് പലയിടത്തും മലയാളം ക്ലബ്ബുകള് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോള് അതൊക്കെ ഒരു മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മലയാള ഭാഷ സം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മളെ വീടുകളില്ത്തന്നെ കുഞ്ഞുങ്ങളെ മലയാളം പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോള് അക്ഷ ഇപ്പോള് കൊച്ചു പിള്ളാരെയൊക്കെ വേണമെങ്കില് ചെറുപ്പം മുതലേ നമ്മള് ഈ അംഗനവാടികളില് പണ്ടൊക്കെയാണെങ്കിൽ ആശാൻ പള്ളിക്കൂടത്തിൽ വിടുമായിരുന്നു അപ്പോള് അവര് ഈ ഓലകളില് പനയോലകളില് ഒക്കെ അക്ഷരങ്ങൾ എഴുതിയാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോള് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അവര് മൂന്നര വയസാകുമ്പോള് അവരെക്കൊണ്ട് നമ്മള് പ്ലേ സ്കൂളില് എൽ കെ ജി യു കെ ജി ആ ഒരു ലെവലിലേക്ക് നമ്മള് പോകുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്നൊരുപാട് പേര് ഇതാക്കുന്നുണ്ട് മലയാളത്തില് വീടുകളില് സംസാരിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ നമ്മളും ഒരു ഭാഗഭാക്കാകുവാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയെ നമ്മള് സംരക്ഷിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ മാതൃഭാഷയെ മറന്നു പോകാതെ നമ്മളതിന് മാതൃഭാഷ മറന്നു പോവാതെ നമ്മള്

അതിനെ നമ്മള് പ്രോത്സാഹിപ്പിക്കും പിള്ളാരെയാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുക അതൊക്കെയൊരു നല്ല കാര്യങ്ങളാണ് എങ്ങനെയാണു നമുക്കിതിൻ്റെ ഈ ശ്രമങ്ങളിള് ആളുകൾക്ക് ഭാഗമാവാൻ കഴിയുന്നതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെയൊക്കെ നമ്മള് മലയാളം ഭാഷയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്സുകരായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം